ഹലോ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ വൈദ്യുതി ബോഡിൽ നിന്ന് ഒരു ഇമെയിൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് എനിക്കിതുവരെ കിട്ടിയില്ല ഞാൻ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് പ്രതീക്ഷിച്ചിരിക്കയായിരുന്നു നേരത്തെ നമ്മൾ ഇമെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും എനിക്കത് ലഭിച്ചിട്ടില്ല കാരണം എന്താന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളാണെങ്കിലൊന്ന് എന്നെ എന്നെ ഒന്ന് സഹായിക്കണമായിരുന്നു കാരണം ഞാൻ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ കുറേ നാളായി ഇത് ഞാൻ കൊടുത്തിട്ട് ഈമെയിലൊക്കെ നിങ്ങളയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളുടെ ഫയലിലെൻ്റെ ശരിയായിട്ടുള്ള ഇമെയിൽ വിലാസം ആണോ എന്നൊന്ന് പരിശോധിക്കണേ കൂടാതെ കോൺട്രാക്ട് വിശദാംശങ്ങളും കൂടൊന്ന് സ്ഥിതീകരിക്കണമായിരുന്നു അന്നാലല്ലേ എനിക്ക് അത് ശരിയാണോ അല്ലയോയെന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ ഈ ഇമെയിലിന് വേണ്ടി എനിക്ക് ഇമെയിൽ കിട്ടണമായിരുന്നു പെട്ടെന്നൊന്ന് അതായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നൊരു ഉടൻ നടപടി പ്രതീക്ഷിക്കുന്നു